ഇന്ത്യയിലെ ചെറുപ്പക്കാരാഗ്രഹിക്കുന്നത് യൂട്യൂബർ ആവാനും സഞ്ചാരി ആവാനും ഹാസ്യ നടന്മാരാവാനൊക്കെയാണ് ഇപ്പോൾ തന്നെ യൂട്യൂബിലാണെങ്കിലും യുട്യൂബിലും കൂടുതലും അറിയപ്പെടുന്നത് ആൺകുട്ടികളാണ് യുവാക്കളാണ് യുവാക്കളാണ് ആദ്യം തന്നെ യുട്യൂബറായിട്ടും പിന്നെ യുട്യൂബിലോരോ വീഡിയോസിട്ട് ഡൗൺലോഡ് ചെയ്ത് റ്റിക്റ്റോക്ക് ചെയ്തിട്ടൊക്കെ അറിയപ്പെടുന്നത് പിന്നെ സഞ്ചാരി ടൂറോ ട്രിപ്പ് പോകുന്നതൊക്കെ കൂടുതൽ യുവാക്കൾ തന്നെയാണ് ചെറുപ്പക്കാരാണ് കൂടുതലും ടൂർ പോകുന്നത് പെണ്ണുങ്ങളാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് നമ്മളെവിടേക്കും പോണില്ല പിന്നെ ഫ്രീയായിട്ടുള്ളത് എന്തെങ്കിലും ജോലിസ്ഥലത്തെ ട്രിപ്പൊക്കെ ആയിട്ടൊക്കെ ചെറുപ്പക്കാരികൾ ചെറുപ്പക്കാരും പോകുന്നുണ്ട് ബൈക്കായിട്ടും കാറിലൊക്കെ ആയിട്ടും ഫ്രണ്ട്സായിട്ട് അടിച്ചുപൊളിക്കാനായിട്ടങ്ങനെ പോകുന്നുണ്ട് ഒരുപാട് ചെറുപ്പക്കാർ അതുകൊണ്ടുതന്നെ ചെറുപ്പക്കാർക്കൊക്കെ ഇപ്പോൾ ഫോണിലൂടെ റ്റിക്റ്റോക്ക് ചെയ്യാനും സൻ സഞ്ചരിക്കാനും അതിനൊക്കെയാണ് എല്ലാവർക്കും താല്പര്യമുള്ളത് യുട്യൂബറെന്നു പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഫോണിലൂടെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമ് റ്റിക്റ്റോക് യുട്യൂബ് എല്ലാത്തിലും അവരിങ്ങനെ ഓരോ വീഡിയോസിട്ട് ഫെയ്മസായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെയാണ് ചെറുപ്പക്കാർക്കാണ് ഈ മേഖലയോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്